നമ്മുടെ ഇവിടെയുള്ള അധ്യാപനം അഥവാ എജ്യുക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥത്തിന് അനുസരിച്ചിട്ടല്ല നടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണമെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ എന്താണോ ബുക്കിലുള്ളത് ആ ബുക്ക് ബുക്ക്സ് എഴുതിയിട്ടുണ്ടായിരിക്കുക എങ്ങനെയൊരു വിദേശി തന്നെയായിരിക്കും അങ്ങനെ ഉള്ളൊരു ബുക്കിൽ നിന്ന് എന്താണോ അതിലെഴുതിയിരിക്കുന്നത് അത് മാത്രം പഠിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് തിയറി മാത്രമാണ് അറിയുന്നത് നമുക്ക് പ്രാക്ടിക്കലി അതെങ്ങനെ നമുക്കത് ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടികൾക്ക് അറിയുന്നില്ല വളരെ ദുർലഭം കുട്ടികൾക്ക് മാത്രമാണ് അത് അറിയുന്നത് കാരണം അവർക്ക് അവർക്ക് ലാബ് ലാബൊക്കെ വന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടാണവർ ചെയ്യുന്നത് പക്ഷേ മിക്ക കുട്ടികൾക്കും തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും അതെങ്ങനെ അത് ഉപയോഗിക്കണം എവിടെയാണ് അതിൻ്റെ ഉപയോഗം വരുന്നത് എന്ന് അറിയാതെയാണ് പഠിച്ചു പോകുന്നത് ഒന്നും കൂടി തെളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ ഓതിത്തരുന്നത് അത് മാത്രം കഴിക്കുക അത് മാത്രം വിഴുങ്ങുക എന്ന രീതിയിൽ അതിന് ഇംഗ്ലീഷിലാണെങ്കിൽ സ്പൂൺ ഫീഡിങ്ങ് എന്നു പറയുന്ന തരത്തിൽ എന്താണോ അവര് കോരിത്തരുന്നത് എന്താണോ ടീച്ചേർസ് കോരി തരുന്നത് അത് മാത്രം വിഴുങ്ങി ഇരിക്കുക എന്ന് വേറെ കാര്യങ്ങൾ പുറം ലോകവുമായിട്ട് വേറൊരു ബന്ധവും ഇല്ലാത്ത പോലെ കോളേജിലെ ബുക്സിൽ എന്താണോ എഴുതിയിരിക്കുന്നത് നമ്മളെ പുസ്തകങ്ങൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രം പഠിച്ച് മാർക്ക് നേടി അതിലാണെങ്കിൽ അവർക്ക് നല്ല മാർക്കും നൂറില് നൂറ് മാർക്കും കിട്ടും പക്ഷേ അവർക്ക് പുറത്തുന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ അതെവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത അവസ്ഥ വരിക ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ളൊരു പ്രശ്നം തന്നെയാണ് അതിന് നമുക്കൊരുപാട് ഒരുപാട് തടസ്സങ്ങളാണ് നമ്മളുടെ പഠിത്തത്തിൽ നമ്മൾ അനുഭവപ്പെടുന്നത് ആരെയും ഒരു കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ഇപ്പോൾ ഇന്ന പോർഷൻസ് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണം പറഞ്ഞാൽ അവരോടിച്ച് തീർക്കും ടീച്ചേഴ്സ് എന്താ അത് നമ്മൾ നമ്മൾ പഠിക്കും നമ്മൾ ഓരോരുത്തരുടെയും കഴിവ് തന്നെയാണത് ആരേയും കുറ്റം പറയാൻ പറ്റില്ല നമ്മൾ തന്നെ സ്വയം പഠിച്ച് മുന്നേറാനുള്ളതാണ് വേണ്ടത്